സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ കാർഷിക മേഖലയുമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അതായത് നമ്മൾ കൂടുതലും നമ്മുടെ നാടുകളിൽ കൃഷി ചെയ്ത് ഒത്തിരി പറമ്പുകളും അവയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് നമ്മുടെ ജില്ലയിൽ ഉള്ളത് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ലോണിൻ്റെ സൗകര്യം ആതായത് ധനസഹായം നൽകുന്നുണ്ട് അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിൽ നിന്നാണെങ്കിൽ പോലും നമ്മൾക്ക് കൃഷി വിത്തുകൾ കൃഷി ചെയ്യാനായിട്ടുള്ള വളങ്ങൾ ഇവയൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് വളരെ മിതമായ നിരക്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ആളുകൾ അവിടെ ചെന്ന് വാങ്ങിക്കുകയും അതുവഴി കൃഷിയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് വളങ്ങളാണെങ്കിലും കൃഷി വിത്തുകളാണെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാനും

നമ്മുടെ കാർഷിക മേഖലയുടെ ഒരു നല്ലൊരു ശതമാനം ഉയർച്ചയ്ക്കും സഹകരണ സ്ഥാപനങ്ങൾ ഒത്തിരി ധനസഹായങ്ങളും അതുപോലെ തന്നെ അറിവുകളും പകർന്ന് നൽകുന്നുണ്ട്